ഇരുപത്തി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് പത്തൊൻപത് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് പതിനേഴ് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് പതിനെട്ട് പത്ത് രണ്ടായിരത്തി പതിനെട്ട്